ആ മാഡം ഇത് കുക്ക് അല്ലേ ആ മാഡം ഞാനേ മൈസൂരിൽ നിന്ന് വിളിക്കുന്നതായിരുന്നേ ആ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾക്ക് കോഴിക്കോട് വെച്ചൊരു ഫങ്ക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്കൊരു പത്തുമുപ്പത് പേരുണ്ട് അപ്പോൾ അവിടുത്തെ കോഴിക്കോട് വരുന്ന ട്രഡീഷണൽ ഫുഡ്സ് എന്തൊക്കെയാണെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുത്തെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വൺ ഡേ ഫുഡ് അവിടുന്ന് തന്നെയായിരിക്കും ആ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഓക്കെ നമുക്ക് അവിടെയുള്ളതിൽ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രഡീഷണൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും മതി അപ്പോൾ നമുക്ക് ഇപ്പോൾ പെർ ഒരാൾക്ക് എത്ര രൂപ വെച്ചാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെന്ന് എല്ലാം കൂടെ അറിഞ്ഞിട്ടുവേണം നമുക്ക് ഏകദേശം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാൻ ആ ആ ടോട്ടൽ ഒരുദിവസത്തെ മൊത്തം മുപ്പത് പേരുണ്ടാവും ആ രാവിലത്തെ ടീയും കാര്യങ്ങളും എല്ലാം വേണ്ടിവരും പിന്നേ ഉച്ചത്തേക്കുള്ള ഫുഡ് പിന്നെ ഈവനിംഗ് ഒരു കോഫിയും എന്തെങ്കിലും പ്ലാൻ ചെയ്യാം പിന്നെ നൈറ്റത്തേക്കുള്ളതും ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഒരു നാലുമണിയൊക്കെയാകുമ്പോ ഒരു ടീയും കാര്യങ്ങളും എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ ആ ഓ ആ ഓക്കെ

ആ എന്തായാലും നോക്കാം നമുക്ക് സ്റ്റേയിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം ആ ഓക്കെ എന്നാൽ മാഡം ഒന്ന് നോക്കിയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി എന്നിട്ട് ഞാൻ അതിൽ വേണ്ടതെല്ലാം ചൂസ് ചെയ്തിട്ട് ഞാൻ മാഡത്തിനോട് പറയാം

ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ

ആ ബുക്ക് ചെയ്തോളൂ മാം ആ നമ്മുടെ കറക്റ്റ് ഈ റെസ്റ്റോറൻറ് എവിടെയാണ് വരുന്നത് ലൊക്കേഷൻ ആ ഓക്കെ ഓക്കെ വരുന്നതിന് രണ്ടുദിവസം മുൻപ് മാഡത്തിനെ വിളിക്കാം ഓക്കെ മാഡം